അതായത് യൂട്യൂബർ കണ്ടെൻറ്റ് ക്രിയേറ്റർ പിന്നെ ഇങ്ങനുള്ള ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് സോഷ്യൽ മീഡിയ പ്ലാട്ഫോമാണ് യൂട്യൂബില് നമ്മള് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പം വ്യൂവേഴ്സിൻറ്റെ പിന്നെ നിലവാരം എത്ര വ്യൂവേഴ്സ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ഒരു നിശ്ചിത തുക സാലറിയായിട്ട് നമ്മുടെ അക്കൗണ്ടിലോട്ട് വരും പിന്നെ എത്ര വ്യൂവേഴ്സ് കൂടുന്നോ അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് വ്യൂവേഴ്സ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് സാലറി കിട്ടിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ നമുക്ക് വേറെ ജോലിഭാരം ഇല്ല നമുക്ക് ഇഷ്ടമുല്ല കണ്ടെൻറ്റ് നമുക്ക് എന്തിനോടാണോ താല്പര്യം അതു മാത്രം നമ്മള് ചെയ്താൽ മതി പക്ഷെ നമുക്ക് പൈസ വീട്ടിലിരുന്ന് തന്നെ സമ്പാദിക്കാൻ പറ്റുന്നൊരു ഇതാണ് യൂട്യൂബേർസ് ക്രിയേറ്റേർസ് സഞ്ചാരികൾ ഓരോത്തർക്ക് ഒരോ യൂട്യൂബേർസിൽ തന്നെ പല അതായത് ഫുഡ് ഉണ്ടാക്കുന്നവരുണ്ടാവും ട്രാവല് ചെയ്യുന്നവരുണ്ടാവും പിന്നെ മേക്കപ്പ് അത് ചെയ്യുന്ന ട്യൂട്ടോറിയൽ ചെയ്യുന്നവരുണ്ടാവും ഓരോരുത്തർ ഓരോരോ ക്രീയേഷനാണ് അപ്പം അതൊക്കെ ചെയ്ത് അതിൽ നിന്ന് ഒരു വരുമാനം ഉണ്ടാക്കാൻ ഇപ്പോഴത്തെ തലമുറയിൽ ഇതിപ്പം അധികം ആയിട്ടില്ല ഒരു നാല് വർഷത്തിനുള്ളിലാണ് ഇത്രയും കൂടുതല് കേരളത്തില് ഒത്തിരി അധികം ആൾക്കാര് യൂട്യൂബേർസ് ഉണ്ടാവുന്നത്